യാത്ര ചെയ്യാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് പിന്നേ ബോബേയിലേക്ക് പോയ അന്ന് ഇരുന്നിട്ട് യാത്ര ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇരിക്കും ഇരുന്നാകുമ്പോൾ നിൽക്കും കുറേ നേരം കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാലിന് നീര് വരും അപ്പോൾ പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കിടന്നിട്ടാണ് യാത്ര ചെയ്തത് ട്രെയ്നിലായിരുന്നു പോയിരുന്നത് ആ ട്രെയിനിൽ അവിടെ തന്നെ അതിൽ തന്നെ ഉണ്ടാകും കമ്പിളി പുതപ്പ് വിരിക്കാനും പുതക്കാനൊക്കെ ഉണ്ടാവും അതിൽ തന്നെ തണുപ്പ് കാലത്താണ് പോയത് അങ്ങനെ ആ ഇരുന്ന് യാത്ര ചെയ്യാനുള്ളാ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഭക്ഷണം ത്തിൻ്റെ കാര്യത്തിലായിരുന്നു പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഭക്ഷണം നമുക്ക് പിടിക്കുകയില്ല അവർ പുലാവ് അതുപോലെ തന്നെ വേറെ പച്ചരി കൊണ്ടുള്ള ചോറ് അതൊക്കെയായിരുന്നു ആ ചോറൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു ആദ്യം പിന്നെ കുറച്ച് എല്ലാം അങ്ങനെ നിന്നപ്പോൾ പിന്നെ അങ്ങനെ ശീലമായി എന്നാലും അധികം ചപ്പത്തിയൊക്കെയാണ് കഴിക്കൽ പിന്നെ അതേപോലെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് അവിടെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ചെക്കപ്പിന് നിൽക്കേണ്ടി വന്നു അപ്പോൾ അവർ എല്ലാ ഇതും ടെസ്റ്റ് ചെയ്തിട്ട് ബോഡിയൊക്കെ പരിശോധിച്ചതിന് ശേഷമേ അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ അപ്പം എൻ്റെ കൈയ്യിൽ അന്ന് ഒരു സാരിക്ക് സേഫ്റ്റി പിന്ന് കുത്തിയതും അരയിൽ ഒരു ഏലസും ഉണ്ടായിരുന്നു അത് അവർ ഇങ്ങന മെഷ്യൻ വച്ച് നോക്കുമ്പം ആ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണ് അരയിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിലെ എനിക്ക് പറയാൻ കഴിയുള്ളു ഭാഷ അറിയില്ല ഭാഷ ഹിന്ദി ഭാഷ അറിയില്ല ഹിന്ദി നഹി എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അപ്പം എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു പിന്നെ ബാക്കിൽ എൻ്റെ അനിയൻ്റെ മോളുണ്ടായിരുന്നു അപ്പോൾ ഓള് വന്നിട്ട് പറഞ്ഞൂ ഹിന്ദി അറിയില്ല അരയിൽ ഒരു ഏലസാണ് അല്ലാതൊന്നുമല്ല പിന്നെ സാരിക്ക് പിന്ന് ചെയ് പിന്ന് കുത്തിയതാണ് അപ്പം അവർ പറഞ്ഞു എന്നാൽ ഇനി പിന്നെ അമ്മായിനെ ഹിന്ദി പഠിപ്പിക്ക് എന്ന് അവർ ഹിന്ദിയിൽ പറഞ്ഞ് കൊടുത്തു അവളോട് അടീകൂടെ കൂടെ കൂടെ വന്ന കൂടെ ഓള് ഉണ്ടായത് കൊണ്ട് അവിടെ നിന്ന് പേടിക്കാതെ ഞാൻ പോന്നു ആങ്ങള മുന്നേ പോന്നും ചെയ്തിരുന്നു അങ്ങനെ ഒരു അനുഭവം ഭാഷ അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ ഫ്ലൈറ്റിൽ പോന്നപ്പോൾ ഫ്ലൈറ്റിലിങ്ങോട്ട് തിരിച്ച് പോന്നത് ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റിൽ പോന്നപ്പഴും അതേപോലെ

ആ കത്രിക ബാഗ് എല്ലാം പാർസലു ചെയ്തേക്കാമയിരുന്നു പക്ഷേ കുറച്ച് ഏതാനും സാധനങ്ങൾ ഞങ്ങൾ ബാഗ് ഹാൻഡ്ബാഗ് ആയിട്ട് ഹാൻഡ് ബാഗിലായിരുന്നു ഈ മരുന്നിൻ്റെ മെഡിസിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നത് ആ ബോക്സിൽ കത്രികയുമുണ്ടായിരുന്നു അത് അവർ നോക്കി അപ്പം അത് എടുത്ത് നോക്കുമ്പോൾ അതിൽ കത്രികയാണ് ആ കത്രികയാണ് അതിലുണ്ടായിരുന്നത് ആ കത്രിക മാത്രം അവർ പുറത്തേക്കിട്ടിട്ട് പിന്നെ ബാഗ് തിരിച്ച് തന്നു അങ്ങനെ ഒക്കെ ഒരു പ്രയസമുണ്ടായിട്ടുണ്ട് പിന്നെ